ആ ഹലോ മോളെ ചേച്ചി എന്നാ ഉണ്ട് വിശേഷമൊക്കെ ആണോ ആണോ ആ എന്തോ ആയി വീട് പണിയൊക്കെ നമ്മളെ ഇവിടുള്ളവർ തന്നെയാണോ കോൺട്രാക്റ്റൊക്കെ ആ ആ ആ അനിയത്തീടെ ഹസ്ബൻറ്റല്ലേ ആ ആ ആണോ അന്നേരം നമുക്കിപ്പം കറണ്ടിൻ്റെയൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പം പ്രത്യേകം ഒക്കെയാണല്ലോ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു തടിയേലൊക്കെ വെച്ച് കറണ്ടെടുക്കാമായിരുന്നു ആ കല്ലിട്ടന്ന് ആ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കല്ലിടീൽ കഴിഞ്ഞായിരുന്നെന്ന് ആ ഹാ

ആ അങ്ങാനുള്ളാഗ്രഹാ ആ ആ ആ അപ്പോൾ പിള്ളാരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ അവർ വരും അവരെയും കൂടെ വരത്തക്ക രീതീലായിരിക്കുവല്ലോ കയറി താമസമൊക്കെ നടക്കുന്നതല്ലേ ആ ആ ആ

ആ വെക്കണവല്ലേ ആ പണിക്കാർ നമ്മുടെ പിന്നെ ബംഗാളികളാണോ അതോ സാധാ നമ്മുടെ മലയാളികൾ തന്നെയാണോ പണിയുന്നതൊക്കെ ആ ആ ആ ആണല്ലേ ആ നല്ല രീതീലെന്താണ് രണ്ടും നല്ലതല്ലേ ആ ആണ് ആ ആ പിന്നെ ആ പിള്ളേർ അന്നേരം അന്നേരം വരുവായിരിക്കുവല്ലേ സുഖമായിട്ടിരിക്കുന്നോ പിള്ളാരൊക്കവിടെ

ആ ആ ആ ഓ അവരെ അഭിപ്രായത്തിലല്ലേ അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്നാ പറയുന്നു ഭയങ്കര സന്തോഷമായിരിക്കും അവർക്കല്ലേ ആ അത് തന്നെ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന അങ്ങനാ വീട് പണി തീർന്നോ കയറി താമസമൊക്കെ കൂടി പോണവല്ലോ ആ ആ ആ പിന്നെ ഇപ്പോൾ എവിടാണ് പണി സ്ഥലത്താണോ അതോ ഇന്ന് പണി നടക്കുന്നുണ്ടോ

ആണോ ആ തറ വേണ്ടേ ഓ ഇല്ല ഷെഡ് കെട്ട് കഴിഞ്ഞോ ഷെഡ് കഴിഞ്ഞു ഇനി തറയുടെ പരിപാടി തുടങ്ങിയോ ആണോ എനി ഇതെല്ലം കെട്ടി കാണിച്ചിട്ടാണോ നമ്മൾ കറണ്ടിനപേക്ഷ കൊടുക്കേണ്ടത് ആ ആ ആ ആ അവർ വന്ന് ആ ആ ആണല്ലേ ആ പിന്നെ കുടുംബം വീടിൻ്റടുത്തായോണ്ടതൊരു ആശ്വാസമല്ലേ അത് തന്നെ ആ അതായല്ലോ ആ അയാൾ തന്നെ രണ്ട് കൂട്ടരേയും കൂടൊരേ പോലെ നോക്കാവല്ലോ അവരെ ഇവരെ നോക്കാൻ അവർക്കൊരനക്കമായി ആ പിന്നെന്നാ ഉണ്ട് വിശേഷമൊക്കെ സൺഡെ സ്കൂള് ടീച്ചറ് പഠിത്തമൊക്കെങ്ങനെ പോവുന്നു ആ തിരക്കാണ് അല്ലേ സാധനത്തിന് നമ്മൾ തന്നെ എല്ലാത്തിനും പോണവല്ലേ

സിബി ചേട്ടനെന്നാ പറയുന്നു

ആണല്ലേ ആ ആ എല്ലാ കാര്യത്തിനും പോകണം ആ ഹാ ആ ആ അതുകൊണ്ട് നല്ലതായി അവരുടെ ബാച്ചാവുമ്പോൾ ഒരു ന്യൂ ജനറേഷൻ ലുക്കി പോവോല്ലോ

അത് തന്നെ അപ്പം മോഡലായിട്ടിരിക്കും നമ്മളെ ഒന്നും ഐഡിയൊന്നും അവർക്ക് പിടിക്കത്തില്ലല്ലോ ആ പിള്ളാരെ രീതീലാവുമ്പോൾ നല്ല രീതീ പോവാല്ലോ ആ ആ അവറൈഡി കാനഡൈഡിയാണോ അതോ ദുബായൈഡിയാണോ ആ ഹാ

ആ ഓക്കെ ശരി നമുക്ക് പിന്നെ കാണാം